ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് ആലപ്പുഴയിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ് നെൽകൃഷി അതും കുട്ടനാട്ടില് നെല്കൃഷി ചെയ്യുന്നത് വാട്ടര് ലെവലിന് താഴെയുള്ള സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ആ കൃഷിയിടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ ചുറ്റോടുചുറ്റും ബണ്ട് കെട്ടി പഴയ കാലങ്ങളിൽ ഈ കായലിൽ നിന്നൊക്കെത്തന്നെ ആറ്റിൽ നിന്നും കായലിൽ നിന്നുമൊക്കെ ചെളി കുത്തിയെടുത്ത് മറ്റ് എന്താണ് പറയുന്നത് സ്വാഭാവികമായി ഇവിടെ കിട്ടുന്ന മുള അതുപോലുള്ള സാധനങ്ങള് ഈറ്റപ്പുല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്താണ് അവിടെ ബണ്ട് കെട്ടിവന്നത് തെങ്ങും കുറ്റിയൊക്കെ അടിച്ച് അതിനെ സംരക്ഷിച്ചു നിർത്തുമായിരുന്നു ആ ഒരു രീതിയാണ് ആദ്യകാലം മുതൽ ചെയ്തുവന്നതും അങ്ങനെയാണ് ഈ കൃഷിസ്ഥലങ്ങളൊക്കെ റെഡിയാക്കിയെടുത്തതും കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ മുഴുവൻ സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകാറില്ല എന്താണെന്നുവെച്ചാൽ വെള്ളമാണ് ചുറ്റോടു ചുറ്റും കുട്ടനാട്ടിൽ വെള്ളം ആവശ്യത്തിനുണ്ട് പക്ഷേ ആ വെള്ളം കയറി ആ കൃഷി നശിച്ചു പോകാതിരിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും ഇവിടെയൊരു സാമിനാഥൻ പ്രോജക്ട് അങ്ങനെയുള്ള ഒരു സ്കീം ഒക്കെ വന്ന് ഇപ്പോൾ ആ ബണ്ട് സംരക്ഷിക്കുന്നത് കോൺക്രീറ്റ് തൂണുകൾ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് സ്ലാബ് ഇറക്കി അതിനെ സംരക്ഷിക്കുന്നത് എങ്കിലും ആ കോൺക്രീറ്റ് തൂണുകളുടെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചെളിയും ഇത് പുല്ലുമൊക്കെ ഇട്ട് ബലപ്പെടുത്തിയ ബണ്ട് തന്നെയാണ് അതിന്റിടയ്ക്കുള്ളത് കോൺക്രീറ്റ് സ്ലാബുകൾ അടുത്തകാലത്താണുണ്ടായത് പക്ഷേ അതിലും ഒത്തിരി ന്യൂനതകളുണ്ട് ആ ന്യൂനതകളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കും ഇത്രയടി നീളത്തിൽ ഇത്ര ഇത് വീതിയിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ഒരു സ്റ്റാൻഡേർഡ് നീളത്തിലുള്ള തൂണും കാര്യങ്ങളൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നത് അതുപോരാ അത് ശാസ്ത്രീയമായി മനസ്സിലാക്കി ഓരോ സ്ഥലത്തും തൂണിൻ്റെ നീളം വ്യത്യാസപ്പെടുത്തണം ഇതും കഴിഞ്ഞ് നല്ലവണ്ണം താഴോട്ട് അതായത് ഈ കുറ്റി കോൺക്രീറ്റ് തൂണുകൾ നല്ലവണ്ണം താഴോട്ട് അടിച്ചിറക്കി ബലപ്പെടുത്തിയിട്ട് അതിനിടയ്ക്ക് ഈ കോൺക്രീറ്റ് സ്ലാബ് ഇറക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ പ്രയോജനം കിട്ടുകയുള്ളൂ ഈ സിസ്റ്റം വരുന്നതിനുമുമ്പ് കല്ല് കെട്ടിയിരുന്നു കല്ല് കരിങ്കല്ല് കൊണ്ടുവന്ന് അടുക്കി കെട്ടിയാണ് ആ ഭിത്തി ഈ ചെളി കൊണ്ടുണ്ടാക്കുന്ന ഇതിനെ പുറമേ സംരക്ഷിച്ചിരുന്നത് പക്ഷേ പല സ്ഥലങ്ങളിലും അതിലും ആ കല്ലുകെട്ട് നിന്നിരുന്നത് കാലം പോലും ഈ സ്ലാബ് കോൺക്രീറ്റിൻ്റെ കോൺക്രീറ്റ് തൂണുകൾ കൊണ്ട് ചെയ്യുന്നത് നിൽക്കാത്തത് അല്ലെങ്കിൽ മറിഞ്ഞുപോകുന്നത് ചെരിഞ്ഞുപോകുന്നത് സിസ് ഇത് നമ്മളിവിടെ കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുവെച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ ഉറപ്പിക്കാത്തതുക്കൊണ്ടു മാത്രമാണ് അത് വേണ്ട രീതിയിൽ അതിൻ്റെ എൻജിനീയർമാരോ ഉദ്യോഗസ്ഥന്മാരോ ഗവൺമെൻ്റ് തന്നെ ഓരോ ഏരിയയിലെയും അതിൻ്റെ ലെവൽ മനസ്സിലാക്കി ചെയ്യണം അതുപോലെത്തന്നെ കോൺട്രാക്ട് പിടിക്കുന്നവർ അവരെപ്പോഴും അവരുടെ ലാഭത്തിനുവേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അവർ ലാഭം കൂടുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്തോറും ഇതിൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് കണ്ണടച്ച് ഒരു വർക്ക് ഇതിൻ്റെ ബണ്ട് ബലപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നതിന് പകരം ശരിയായ രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തും വേണ്ട ഹൈറ്റ് അനുസരിച്ച് തന്നെ ഉള്ള തൂണുകൾ നാട്ടി അതിനെ ബലപ്പെടുത്തി ഈ കൃഷിയെ സംരക്ഷിക്കണം ഇത് ശരിയായ രീതിയിൽ സംരക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകാലംകൂടി കഴിയുമ്പോഴത്തേക്കും ഈ കൃഷിയൊക്കെ നിന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നുവെച്ചു കഴിഞ്ഞാൽ വാട്ടർ ലെവലിപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ചിട്ട് വാട്ടർ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ആ വാട്ടർ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ബണ്ട് ബലപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ ഈ ബണ്ട് പൊട്ടി വെള്ളം അതിലേക്ക് കടത്തും കടന്നുപോകും പിന്നെ ഇതിന്റെയകത്ത് കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം ഉപയോഗിക്കുന്നതെങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ തൂമ്പ് എന്നാണ് പറയുന്നത് തൂമ്പ് ചെറിയ ചെറിയ തൂമ്പുകൾ വെച്ചിട്ടുണ്ടാകും പാടശേഖരത്തിൻ്റെ ചുറ്റോടുച്ചുറ്റും ആ തൂമ്പ് തുറന്നാണ് നമ്മൾ പാടത്തേക്ക് വെള്ളം കയറ്റുന്നത് ആ വെള്ളം കയറിയിറങ്ങി ഒരു പാടത്തുകൂടി കയറിയിറങ്ങി അടുത്ത പാടത്തേക്ക് പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാലുകളെന്നു പറയും ആ ചാലുകൾ വഴി ഓരോ കൃഷിസ്ഥലത്തിലും കയറിയിറങ്ങി ആവശ്യത്തിന് വെള്ളം ആ ഒരു പാടശേഖരത്തിൽ മൊത്തം വെള്ളം നിറയും അതേപോലെ ഈ വെള്ളം ആവശ്യം കഴിയുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഇപ്പോളൊന്ന് വെള്ളം കയറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പറ്റിക്കണം ആ വെള്ളം പറ്റിക്കുന്നതിന് മോട്ടോറുകൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിനായിട്ട് പ്രത്യേകം സ്ഥലങ്ങളുണ്ട് ഓരോ എല്ലാ പാടശേഖരത്തും രണ്ടും മൂന്നും മോട്ടോറുകൾ പിടിപ്പിച്ചിട്ടുണ്ടാകും നേരത്തെ പെട്ടിയും പറയും ഉൾപ്പെടെയുള്ള മോട്ടോറുകളാണ് പിടിപ്പിച്ചിരുന്നത് ഇപ്പോളത് മാറി ഗവൺമെൻ്റ് ഈ പെട്ടിയും പറയുമൊന്നും ഇല്ലാത്ത മോട്ടറുകളും പിടിപ്പിക്കുന്നുണ്ട് എങ്കിൽപ്പോലും അത് നല്ല ഫോഴ്സിൽ വെള്ളം പുറത്തേക്ക് വലിക്കുന്നതല്ലാത്ത സാധനം മോട്ടറുകളാണ് പിടിപ്പിക്കുന്നതെങ്കിൽ അതിനി പെട്ടിയും പറയും ഉപയോഗിച്ച് നടത്തിയിരുന്നതിൻ്റെ ഒരു പ്രയോജനം മോട്ടറിൻ്റെ ഒരു പ്രയോജനം ഇപ്പോഴത്തെ പമ്പുകളിൽ കാണുന്നില്ല പലപ്പോഴും അത് വർക്ക് ചെയ്യത്തില്ല അങ്ങനെയുള്ള ചില മെയിൻ്റനൻസിൻ്റെ കുറവ് നേ അതിന് നടത്താനായിട്ടൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാരെ അപോയിൻ്റ് ചെയ്യാതെ ആരെയെങ്കിലും ഏല്പിച്ചിട്ട് അത് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് അത് പലപ്പോഴും ഫെയിലായി പോകുന്നതായിട്ടും കാണുന്നുണ്ട് മോട്ടറും തറയും അതായത് പെട്ടിയും പറയുമുള്ള സിസ്റ്റം തന്നെയായിരുന്നു ഒരുകാലത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നതാണ് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ടു കൊണ്ടുപോകണം പിന്നെ അത്യാധുനിക മോട്ടോറുകളൊക്കെ പിടിപ്പിക്കുന്നതിന് എതിരല്ല അത് തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷേ അത് ഓരോ പാടശേഖരത്തിനും എത്ര കപ്പാസിറ്റിയുടെ വേണം എന്ന് അനുസരിച്ച് അത് നോക്കി വേണം ചെയ്യാനായിട്ട് അല്ലാതെ എല്ലായിടത്തും എന്തെങ്കിലുമൊരു കപ്പാസിറ്റിയുടെ മോട്ടർ പിടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ആ പിന്നെ പാടശേഖരത്തിലെ വെള്ളത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാതെപോകും മഴയെ ഞങ്ങൾ കുട്ടനാട്ടിൽ തന്നെ താമസിക്കുന്ന ആളായത് ആൾക്കാരായതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഞങ്ങളെപ്പോഴും മഴയെ തന്നെയാണ് ആശ്രയിക്കുന്നത് വീടുകളിൽ മിക്കവാറും ഒരുവിധം വീടുകളിലെല്ലാം തന്നെയും മഴവെള്ള സംഭരണി ഉണ്ട് ആ മഴവെള്ള സംഭരണിയിൽ വെള്ളം ശേഖരിച്ച് ആ വെള്ളം ഒരു വർഷം മുതൽ മുഴുവൻ കുടിക്കുന്ന രീതി അറ്റ് ലീസ്റ് കുടിക്കാനെങ്കിലും ആ വെള്ളം മാത്രമാണ് ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ അത് മഴക്കാലം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം ഏകദേശം നാല് അഞ്ച് മാസം മഴക്കാലം ഉള്ളതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു പതിനായിരം ലിറ്ററിൻ്റെ ഒരു മഴവെള്ള സംഭരണിയുണ്ടെങ്കിൽ അത് ഒരു നാലഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ കുടിക്കാനും പാചകം ചെയ്യാനും ഈ രണ്ടിനും ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഫവം കൊണ്ടുതന്നെ പറയുകയാണ് എൻ്റെ വീട്ടിൽ പതിനായിരം ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഞാനെൻ്റെ പുര വെക്കുന്നതിന് മുമ്പ് തന്നെ അതാണാദ്യം പണിതത് അതിൽ എല്ലാ പ്രാവശ്യവും അതിന്റെയകത്ത് എല്ലാം ക്ലീൻ ചെയ്ത് അതായത് മെറ്റലും കാര്യങ്ങളുമെല്ലാം ക്ലീൻ ചെയ്ത് അതിന്റെയകത്ത് കരിയും സാധനങ്ങളുമൊക്കെ ഇട്ട് അതുവഴിയാണ് ഫിൽറ്റർ ചെയ്താണ് ആ വെള്ളം സംഭരണയിലേക്ക് ശേഖരിക്കുന്നത് അതെല്ലാം ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയായി എല്ലാ വർഷവും അത് സംഭരണിയൊക്കെ പറ്റിച്ച് പറ്റിയാൽ അതുപോലെ തന്നെ പെയിൻ്റ് അല്ല ചെയ്യുന്നത് വൈറ്റ് സിമൻ്റൊക്കെയൊന്ന് അടിച്ച് അതിൽ വെള്ളം നിറച്ച് ആ വെള്ളം പുറത്ത് കളഞ്ഞ് അതിന് ശേഷമാണ് അത് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശേഖരിക്കുന്നത് അതൊരു രണ്ടുമൂന്നു ദിവസത്തെ സമയം അതിനാവശ്യമാണ് അതങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് ഗുണമുണ്ട് അതനുസരിച്ചിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം വിലയ്ക്ക് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം അത് കുട്ടനാട്ടിൽ പ്രത്യേകിച്ചും പൈപ്പ് ലൈനൊന്നും ശക്തമായ രീതിയിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഗവൺമെൻ്റ് അതിനെ പ്രോത്സാഹിപ്പിച്ച് ജയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കാശ് മുടക്കി തന്നെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അതിനുപകരം ഗവൺമെൻ്റ് എല്ലായിടത്തും അത് എല്ലാ വീടുകളിലും നിർബന്ധപൂർവ്വം വീടിൻ്റെ അപ്പ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈയൊരു മഴവെള്ള സംഭരണിയും കൂടി ചെയ്യണമെന്നും അതുപോലെത്തന്നെ വർഷാവർഷങ്ങളിൽ അത് മെയിന്റെയ്ൻ ചെയ്തത് കൊണ്ടുപോകുന്നുണ്ടെന്ന് ടാക്സ് അടയ്ക്കാനായിട്ട് വല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടാക്സ് മേടിക്കുക മാത്രമല്ല അത് വർക്ക് ചെയ്യുന്നത് ഉണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എൻഷുവർ ചെയ്യേണ്ടതും ഇനിയുള്ള കാലങ്ങളിൽ ഗവൺമെൻ്റിൻ്റെ ഉത്തരവാദിത്വമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻ്റ് അതിനുവേണ്ടി കൂടുതൽ ഇംപോർട്ടൻസ് കൊടുക്കുമ്പോൾ ജനങ്ങളും അതിന് ബോധവാന്മാരായിക്കോളും അങ്ങനെ കുടിവെള്ളം ആ രീതിയിൽ നമുക്ക് മഴവെള്ളം സംഭരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും